ഇന്ന് കേരളത്തിൽ ആരോഗ്യ തലത്തിൽ തന്നെ ഒരുപാട് ആരോഗ്യ പരിരക്ഷ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇപ്പം വീഡിയോ കോൺ വീഡിയോ കൺസൽറ്റേഷനിലൂടെയും അതുപോലെ ഇപ്പം നമുക്ക് ഒരു ബുക്ക് ചെയ്തിട്ടാണെങ്കിലും ഇപ്പോൾ സോഷ്യൽ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ഇപ്പം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്നെ ഒരുപാട് ഇപ്പം ദൂരെയുള്ള ഡോക്ടർസിനെ പറ്റി അറിയാനും അവരു അവരുമായിട്ട് സംസാരിക്കാനും എന്താണ് ഇപ്പം ദൂരെ നമുക്ക് പോകാൻ പറ്റാത്ത ഇടത്ത് എങ്ങനെ ആണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്ത് അവരുമായിട്ട് സംസാരിക്കാനും വീഡിയോയിലൂടെ എന്താണ് അസുഖം എന്നൊക്കെ പറയാനും പിന്നെ ട്രീറ്റ്മെൻറ് എടുക്കാനുള്ള ഒരു ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒക്കെ കഴിയുന്നുണ്ട് അവർ ഇപ്പം തന്നെ നമുക്ക് ബുക്ക് ചെയ്യാൻ വരെ ഓരോ സാങ്കേതിക വിദ്യയിലൂടെയാണ് നമുക്ക് ഇപ്പം ഓരോ ഡോക്ടർസ്ൻ്റെ അടുത്ത് പോകണമെങ്കിൽ പിന്നെ ഓരോ ടോക്കൺ വച്ചിട്ടാണല്ലോ ആദ്യം ഒക്കെ പോയി എഴുതി ഇടും ഇപ്പം ഫോണിലൂടെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാനും അതിനുള്ള ഒരു സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതല്ലാതെ രണ്ടാമത് ഇപ്പം കാണിക്കാൻ പോണ പോകണമെങ്കില് നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരികയും ആ രീതിയിലൊക്കെ സാങ്കേതിക വിദ്യ ആരോഗ്യ രംഗത്തും ഇന്ന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാര് ഇപ്പം ഇപ്പം ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പറേഷനോ എന്തെങ്കിലും വന്നാൽ നമുക്ക് ഇപ്പം ഒരു ഡോക്ടർസ് പിന്നെ വലിയ രീതിയില് സർജൻ സർജൻ ഒരു വലിയ ഡോക്ടർസ് ഒക്കെ ആണെങ്കില് ഒരുപാട് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്ന ഇടത്ത് തന്നെ വീഡിയോ കോളു വഴി ഓപ്പറേഷൻ ചെയ്ത് വിജയകരമായിട്ടും നമ്മൾ കേട്ടിട്ടുണ്ട്